ഒൻപത് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് ഏഴു ലക്ഷത്തി എണ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് അഞ്ചു ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട്